വെല്ലുവിളികളാണെന്നുണ്ടെങ്കില് ഒരുപാടുണ്ട് പക്ഷേ അതില് പ്രധാനമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കില്ത്തന്നെ നമ്മുടെ കുട്ടികളെ നമ്മൾ സ്കൂളിലേക്ക് പറഞ്ഞയക്കുന്നതു തന്നെയാണ് ഇന്നാരും മലയാളം മീഡിയം ചൂസ് ചെയ്യുന്നില്ല പകരം ഇംഗ്ലീഷ് മീഡിയത്തിലോട്ടാണ് പറഞ്ഞയക്കുന്നത് നമ്മള് നമ്മുടെ കുട്ടി ഇംഗ്ലീഷിലാണ് പഠിക്കുന്നതെന്ന് പറയുമ്പോള് അതെന്തോ വലിയ അഭിമാനമായിട്ടാണ് കാണുന്നത് നമ്മള് മലയാളം പഠിച്ചിട്ട് മലയാളത്തിന് മാർക്ക് കുറഞ്ഞാലും കുഴപ്പമില്ല ബാക്കി സബ്ജെക്റ്റുകളിലും ഇംഗ്ലീഷിലും മാർക്കുണ്ടല്ലോ അതാണ് നോക്കുന്നത് ഇപ്പോള് നമ്മുടെ ഇംഗ്ലീഷിന് ഇനിയിപ്പോള് നമ്മളൊരു ഇൻറ്റർവ്യൂവിന് പോയിക്കഴിഞ്ഞാലും എന്തിന് പോയിക്കഴിഞ്ഞാലും നമ്മുടെ മാതൃഭാഷ നല്ലപോലെ കൈകാര്യം ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുന്നില്ല പകരം നമ്മള് ഇംഗ്ലീഷാണ് കൈകാര്യം ചെയ്യുന്നുണ്ടോ എന്നു ചോദിക്കുന്നത് എല്ലാത്തിനും ഇംഗ്ലീഷിനും ഇപ്പോള് കുട്ടികളോട് നമ്മള് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവര് നമ്മളോടിങ്ങോട്ട് ചോദിക്കും അതിനെന്താണ് ഇംഗ്ലീഷിൽ പറയുക എന്നുള്ളത് നമുക്ക് നമ്മള് യൂസ് ചെയ്യുന്നത് നമ്മള് യൂസ് ചെയ്യുന്നതും ഇംഗ്ലീഷ് തന്നെയായിട്ടായിരിക്കാം ഇന്നത്തെക്കാലത്തങ്ങനെയല്ലേ ഇപ്പോള് ബുക്കുകള് വായിക്കുന്നില്ല പകരം എല്ലാവരും സോഷ്യൽ മീഡിയയില് ഉള്ളതുകൊണ്ട് അതിനുള്ള സാഹിത്യവും കാര്യങ്ങളും ഒന്നും അറിയില്ല നമ്മളിപ്പോള് എന്തെങ്കിലുമൊരു പഴഞ്ചൊല്ലും കാര്യങ്ങളും പറയുകയാണെന്നുണ്ടെങ്കില് കുട്ടികൾക്കതൊന്നും മനസിലാവുന്നില്ല എല്ലാം നമ്മള് ഇംഗ്ളീഷില് പറഞ്ഞു കൊടുക്കേണ്ട അവസ്ഥയായി അത് ഭയങ്കരമൊരു ഒരു തകർച്ച തന്നെയാണ് മലയാള ഭാഷയുടെ സത്യം പറഞ്ഞാല് കുറച്ച് കാലം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാല് ഇങ്ങനെയൊരു മലയാള ഭാഷ ഉണ്ടായിരുന്നു എന്ന് വേണ്ടി പറയേണ്ടിവരും കാരണം കുട്ടികൾക്കതറിയാൻ പറ്റില്ല ഇനി നമ്മുടെ സിലബസ് കാണുന്നുണ്ടെങ്കിലും അങ്ങനെയൊരു മലയാളം എടുത്തൊഴിവാക്കേണ്ട അവസ്ഥയാകും കാരണം എന്തൊരു കാര്യത്തിനും ഒരു ഇൻറ്റർവ്യൂന് പോവുകയാണെന്നുണ്ടെങ്കിലും ഒക്കെ നമ്മള് മലയാളമല്ലല്ലോ നമ്മളോട് ചോദിക്കുന്നത് എല്ലാം ഇംഗ്ലീഷാണ് അപ്പോള് നമ്മള് ഇപ്പോള് നമ്മള് സാധാരണക്കാർക്കും സാധാരണക്കാര്പോലും പണ്ട് സാധാരണക്കാര് മലയാളം മീഡിയവും കുറച്ച് ഹൈലെവലിലുള്ളവര് ഇംഗ്ലീഷ് മീഡിയമായിരുന്നു ചൂസ് ചെയ്യുന്നത് ഇപ്പോഴതിപ്പോള് സാധാരണക്കാർക്കും അങ്ങനൊരു പ്രശ്നം വന്നതുകൊണ്ട് സ്കൂളുകളില് നമ്മള് ഇംഗ്ലീഷ് മീഡിയത്തിലോട്ടെ പറഞ്ഞയയ്ക്കുന്നുള്ളൂ കാരണം അതെന്തോ വലിയ ഒരു മെച്ചമായിട്ട് കാണുന്ന ഒരു സമൂഹമാണ് നമുക്ക് ചുറ്റും